അയ്യോ ചേട്ടാ ഇതു വർക്കാകുന്നില്ല നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഗൂഗിൾപേ വർക്കാകുന്നില്ല ഞാനൊന്നു രണ്ട് തവണ നോക്കി എന്നിട്ടും നടക്കുന്നില്ല എന്തോ എറർ കാണിക്കുന്നു പേടിഎം ആണെങ്കിൽ അതും നടക്കുന്നില്ല എന്താണ് ചെയ്യുക നിങ്ങളെ ചാർജ്ജ് തരണ്ടേ അതേ അതേ നിങ്ങളെ കമ്പനി റൂൾ പ്രകാരം ഗൂഗിൾപേ അല്ലേ പറയുന്നത് എനിക്കിപ്പോൾ ഒരു വഴിയുമില്ല ഇതു രണ്ടും വർക്കാകുന്നില്ല ചേട്ടന് ഞാനിത് പേയ്മെൻ്റ് കാഷ് ആയിട്ട് തന്നാൽ മതിയോ ആ എൻ്റെ കയ്യിൽ കാഷ് ഉണ്ട് രണ്ടായിരം രൂപയല്ലേ വരുന്നത് ആ ആ അതേ അതേ എൻ്റെടുത്ത് കാഷ് ഉണ്ട് എന്നാൽ ഇത് നിങ്ങൾ ഈ പേയ്മെൻ്റ് കാഷ് ആയിട്ട് വാങ്ങിക്കുമോ ഓക്കെ നിങ്ങളെ കമ്പനിയിൽ നിങ്ങളൊന്ന് ഒന്ന് ഞാൻ നിങ്ങളെ കാബ് എല്ലാം ബുക്ക് ചെയ്യുന്ന ആളാണല്ലോ ചേട്ടനൊന്ന് പറഞ്ഞ് ഒന്ന് ഇതാക്കുമോ നിങ്ങളെ ഓക്കെ എങ്ങനെയാണ് ചേട്ടനിത് കാഷ് ആയി തന്നെ വാങ്ങിക്കുമോ ഓക്കെ ചേട്ടാ ശരി ചേട്ടാ താങ്ക് യു